ഹലോ സർ ഹലോ സംസാരിച്ചോളൂ എന്തായിരുന്നു എന്തായിരുന്നു ബുദ്ധിമുട്ട് അ ഇതിൻ്റെ മുൻപ് ഉണ്ടായിട്ടുണ്ടായിരുന്നോ അ അ എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നുണ്ടായിരുന്നോ ചുമ ഉണ്ടായിരുന്നോ മെഡിസിൻ എന്തെങ്കിലും ഇല്ല കോവിഡ് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ മുന്നേ അ മൂക്കടപ്പ് ജലദോഷം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട്

അ അ ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് ആണോ ഓക്കെ ഓക്കെ ഇതിപ്പോൾ രണ്ട് ദിവസം ആയല്ലേ തുടങ്ങിയിട്ട് അ വീട്ടിൽ ആർക്കെങ്കിലും കോവിഡ് അ അ വീട്ടിൽ ആർക്കെങ്കിലും പനി ജലദോഷം അങ്ങനെ വല്ല ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നോ ആരോഗ്യപ്രശ്ങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ കോവിഡ് ടെസ്റ്റ് ചെയ്തിരുന്നോ അ അ പോസിറ്റീവ് ആയിരുന്നോ ആള് നെഗറ്റീവ് ആയിരുന്നു അല്ലേ അ അ പിന്നെ നിങ്ങൾ തണുപ്പുള്ള ഭക്ഷണങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നോ പുറത്ത് നിന്ന് ഫുഡ് കഴിക്കുവോ മീൻസ് അ പുറത്ത് നിന്ന് കഴിച്ചിട്ടില്ല ഓ കോവിഡിൻ്റെ ആണോ എന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അ നിങ്ങളുടെ ലക്ഷണം കേട്ടിട്ട് ഒരു കോവിഡ് കോവിഡ് ഫസ്റ്റ് സ്റ്റേജ് ആകാൻ ആണ് ചാൻസ് അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് പറയാം ഓക്കെ താങ്ക്യൂ